അതെ അമ്മൂസ് വെഡിങ്ങ് ആണ് ആ അതെ തൃശ്ശൂരുള്ള അമ്മൂസ് വെഡിങ്ങ് ആണ് എന്താണ് വിളിച്ചത് ആ ഓക്കെ നമ്മളൊരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തുകൊടുക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടും വീഡിയോ വിഡിയോഗ്രാഫറും സെറ്റ് ആക്കിത്തരും നമ്മൾ എന്നാണ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി അല്ലേ ആ ഒന്നാം തീയതി ഫ്രീ ആണ് നമുക്ക് വിഡിയോയും സ്റ്റില്ലും വേണോ റേറ്റ് നമുക്ക് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ആ രണ്ടും കൂടിയിട്ട് ഏ ഞങ്ങളുടെ സ്റ്റില്ലിന് രണ്ട് ആളുണ്ടാവും അതേപോലെ തന്നെ വീഡിയോ രണ്ടാളും നാല് പേർ പിന്നെ നമുക്ക് ഇൻക്ലൂഡ് ആകുന്നത് പെട്രോൾ ഫണ്ട് ആണ് വണ്ടിയായിട്ട് വരുമ്പോൾ പെട്രോൾ ഫണ്ട് കുറച്ച് ചിലവാകും അതും കൂടിയൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് ഫിഫ്റ്റീൻ തൗസൻഡ് പറഞ്ഞത് ആ മെയ് ഒന്നാം തീയതി ഫ്രീ ആണ് ആ നമ്മല് ഇപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് പറഞ്ഞത് കല്യാണവും തലേദിവസവും കൂടിയിട്ടാണ് പിന്നെ പ്രീ വെഡിങ്ങ് അത് നമുക്ക് വേറെ കോസ്റ്റ് വരും അത് നമുക്ക് നിങ്ങൾ സേവ് ദ ഡേറ്റ് അല്ലേ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നമ്മൾ ചെയ്യാറുള്ളത് ഫൈവ് തൗസൻഡിൻറ്റെയാണ് അതുനമ്മൾ ബീച്ച് വെച്ചിട്ടാണ് ചെയ്യാറ് നിങ്ങൾക്ക് പ്ലേസ് മാറ്റണമെങ്കിൽ അവിടെ മാറ്റാം ആ അതെന്തായാലും വരും ട്വൻറ്റി തൗസൻഡിൻ്റെ എബോവ് എന്തായാലും വരില്ല ബിലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ചെയ്തുതരാം ആ വർക്ക് ആണോ മറ്റേ നമ്മുടെ ഇൻസ്റ്റയിൽ അമ്മൂസ് വെഡിങ്ങ് എന്ന് അടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതെല്ലാം അതിൽ കാണാം നമ്മുടെ വർക്ക് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സേവ് ദ ഡേറ്റ് ഞാൻ ഞാൻ പറയുന്നത് ബീച്ച് ബീച്ച് സൈഡിൽ ഒരു റെഡ് ടൈപ്പ് ഡ്രസ് ആണ് കുറച്ചുകൂടെ മാച്ച് ആവുക ഇല്ല നമുക്ക് കുഴപ്പമില്ല എന്ത് ഡ്രസ് ആയാലും കുഴപ്പമില്ല എന്നാലും ഞാൻ കുറച്ചുകൂടെ ഇതായൊന്നു റെഡ് എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ റേറ്റ് ഇപ്പോൾ മിനിമം ആണ് നമ്മൾ ട്വൻറ്റി തൗസൻഡ് പറഞ്ഞത് ഇനി ഇപ്പോൾ അതിനി കുറയ്ക്കാൻ പറ്റു നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇത് ലൈറ്റ് ബോയ്ക്ക് കുറച്ച് ഫണ്ട് കൊടുക്കണം അതേപോലെ തന്നെ പെട്രോൾ ഫണ്ട് കൂടുമ്പോൾ ട്വൻറ്റി തൗസൻഡ് എബോവ് ആണ് എല്ലാവരും പറയുന്നത് നമ്മൾ ഏറ്റവും കുറവാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം അതെ നാല് പേർ ടോട്ടൽ ഉണ്ടാവും ഫുഡ് നമുക്ക് മാര്യേജ് ഫംഗ്ഷനിലുള്ള ഫുഡ് ആണ് ഞങ്ങൾ കഴിക്കാറ് ആ അതെ അമ്മൂസ് വെഡിങ്ങ് എന്നാണ് ആ ഓക്കെ ചോദിച്ചിട്ട് വിളിക്ക് എന്തായാലും ഞങ്ങൾക്ക് ഒന്നാം തീയതി ഫ്രീ ആണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ആ ഓ ഓക്കേ ശരി